മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നിടത്തായിരുന്നാലും അവയെ കശാപ്പ് ചെയ്തതിനുശേഷം സൂ സൂക്ഷിക്കുന്നിടമായാലും വളരെ വൃത്തിയോട് കൂടി സൂക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്ന നല്ല തണുപ്പുള്ള ഒരു റൂമിലത് സെറ്റ് ചെയ്യണമെന്നാണ് ഞാനും പറയണത് അല്ലാതെ ഇപ്പോള് നമ്മള് പലയിടത്തും കാണാറുണ്ട് റോഡിൽ കൂടെ പോകുമ്പോള് റോഡ് സൈഡിലൊക്കെ അവരിങ്ങനെ വെറുതെ ഒരു കമ്പില് കെട്ടിയിട്ട് ഇതിനെ അറത്തറത്തു വയ്ക്കുന്നത് അതീ വണ്ടിയും അതും ഇതും ഒക്കെ ഉള്ള പൊടിയും ഒക്കെ അടിച്ച് അങ്ങനെ അത്ര വൃത്തിയില്ലാതെ ആണ് ഇരിക്കണത് അപ്പോള് അതിനോടെനിക്ക് താൽപ്പര്യമില്ല എനിക്കതിനെ നന്നായിട്ട് നല്ല രീതിയില് ചെയ്തുവയ്ക്കണതാണ് അതിൻ്റെ ഗുണനിലവാരം ആയിരുന്നാലും അതിനെ നമുക്ക് ഉപയോഗിക്കാനായിരുന്നാലും ഒക്കെ നല്ലതെന്ന് പറയണത് പിന്നെ ഒരു മൃഗത്തിനെ വാങ്ങിക്കുമ്പോള് നമ്മളതിൻ്റെ പ്രായം അതിൻ്റെ വലുപ്പം എല്ലാം നോക്കി തന്നെ വേണം വാങ്ങിക്കാൻ അല്ലാതെ വെറുതെ പ്രായം കൂടിയ മൃഗങ്ങളെയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു നമ്മളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് തന്നെ ഒരുപാട് നഷ്ടം വരും കാരണം അതില് മീറ്റ് വളരെ കുറവായിരിക്കും പിന്നാ മുറ്റിയ മീറ്റ് ആകുമ്പോള് അത് രുചി കാണൂല്ല അപ്പോള് ഒരിക്കല് വാങ്ങിക്കുന്ന ആള് പിന്നീട് വന്ന് വാങ്ങിക്കൂല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങള് വരും മറ്റേത് നമ്മള് നോക്കി കറക്റ്റ് ചെയ്തെടുക്കുകയാണെങ്കില് ഒരൽപ്പം പൈസ കൂടിയിരുന്നാലും ചിലപ്പോള് അതിൻ്റെ ഇരട്ടി സമ്പാദിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നല്ല രീതിയിലുള്ള അത് നോക്കിയെടുക്കണമെന്നുള്ളതാണ് എൻ്റഭിപ്രായം